പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഒന്ന് മൂന്ന് പത്ത് രണ്ടായിരത്തി രണ്ട് നാല് എട്ട് രണ്ടായിരത്തി നാല് അഞ്ച് അഞ്ച് രണ്ടായിരത്തി അഞ്ച് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന്